ഗ്രാമീണ സമുദായത്തിലെ കാർഷിക വ്യവസായത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ആദ്യമായി നമുക്ക് ലഭ്യമാക്കേണ്ടത് നല്ല ഇനം തൈകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണകളും നൽകുകയും അവർക്ക് വേണ്ട തൈകൾ എത്തിച്ച് നൽകുക എന്നതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നീട് രണ്ട് എന്ന് പറയുന്നത് ഇന്ന് ഓരോ വീട്ടിലെ മക്കളും വീടുകൾ അവർക്ക് വേണ്ടി വ്യത്യസ്തമായി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വീടുകൾ വെച്ച് ഗ്രാമത്തിൽ ലഭ്യമായ വസ്തുക്കൾ ഒക്കെ തന്നെ പരിമിധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ട നിർമ്മാണം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടു വരുകയും അനാവശ്യമായിട്ട് കെട്ടിട നിർമ്മാണത്തിന് നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്യുന്നതായിരിക്കും ആദ്യം നമുക്ക് നമ്മുടെ ഭൂമി ലഭ്യതക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത് സർക്കാരിൻ്റെ തീരുമാനം അല്ലെങ്കിൽ സർക്കാരിന്റെ മുൻകൈ എടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് തൈകൾ നമ്മുടെ ഗ്രാമീണ സമുദായ കർഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർക്ക് എന്ത് അവർക്ക് നല്ലൊരു വ്യവസായത്തിന് അവർക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്ന് ലഭിക്കാതെ വരുന്ന ഈ പിന്തുണയുടെ പിന്തുണ സർക്കരിന് ലഭിക്കാതെ വരുന്ന പിന്തുണ കാരണമാണ് ഇവർ ഈ കർഷകർ എന്ന് പറയുന്ന സമുദായം കർഷകർ സമുദായക്കാരെ ആ ആ തൊഴിൽ വിട്ട് മറ്റൊരു തൊഴിൽ തേടി നമ്മുടെ പട്ടണങ്ങളിലോട്ടും മറ്റും ചേക്കേറുകയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയൊക്കെ തന്നെ ചെയ്യുന്നത് ഗൾഫിലൊക്കെ പോകുന്ന ഒത്തിരി പ്രവാസികൾ നാട്ടിൽ വന്ന് അതായത് ഗൾഫിലെ കാലഘട്ടം മതിയാക്കി വരുമ്പോഴത്തേക്കും അവർ ഇവിടെ വന്ന് കർഷകർ എന്ന നിലക്ക് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് പരിമിതമായ വസ്തുക്കളിൽ നിന്ന്കൊണ്ട് എത്രത്തോളം കർഷകർ കർഷക വൃത്തി അവർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് പരിമിധമായ വസ്തുക്കളിൽ നിന്ന് കൊണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തു അവർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ടത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ കരാർ അടിസ്ഥാനത്തിലോ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ അവർക്ക് ലഭിക്കുവാണെങ്കിൽ നല്ല കഴിവുള്ള കർഷകർ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഓരോ കാര്യങ്ങൾക്കും എന്തൊക്കെ വിളകളാണ് ഉള്ളത് എന്നും അതിന് എന്തൊക്കെ പ്രത്യേക വിള പ്രത്യേക ഇനങ്ങളുണ്ടെന്നും അറിയുന്നതും അവർക്ക് വേണ്ട എന്താണ് വളം പോലുള്ള കാര്യങ്ങളും വെള്ളം എത്രത്തോളം ലഭ്യമാക്കണം എന്ന കാര്യങ്ങളും ഒക്കെ കൃത്യമായി അറിയാവുന്ന ഒരുപാട് കർഷകർക്ക് ന കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സർക്കരിൽ നിന്ന് നമുക്ക് സൗജന്യമായ തൈ വിതരണം അതേപോലെ വസ്തുൂവിന് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ അവരുടെ കർഷകവൃത്തിയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഇടപാടുകളുണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്